ഹലോ ലൈബ്രറിയല്ലേ ഇത് ആ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാനായിട്ട് വിളിച്ചതായിരുന്നു ലൈബ്രറീയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നമുക്ക് എന്തെക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഓപ്പണായി ഇന്ന് ഉച്ചത്തേക്ക് ഓപ്പണായിരിക്കും

ഇവിടെ ലൈബ്രറി എപ്പോഴൊക്കെ ഓപ്പണായിരിക്കും ഈ ലൈബ്രറി ഏതൊക്കെ സമയത്താണ് ഓപ്പണായിരിക്കും എന്നാണ് ചോദിച്ചത് ഓക്കെ എന്തൊക്കെ ഡോക്യൂമെൻസാ നിങ്ങൾക്ക് അസസ്സ് ചെയ്യേണ്ടത് അഡ്മിഷന് വേണ്ടിയിട്ട് അതെ എനിക്ക് എപ്പോൾ വന്നാലും അഡ്മിഷലോ സിരിയസോ ചെയ്യാനായിട്ട് പറ്റുമോ എപ്പോൾ വന്നാലും അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ

ഏത് സമയത്ത് വന്നാലും അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമോ അതെ അവിടെ അവൈലബിളായിട്ടുള്ള ലിസ്റ്റ് ഏതൊക്കെയായിരുന്നു മെയ്നായിട്ടും മെയിൻ ക്യാറ്റഗറീൽ എന്തൊക്കെ ക്യാറ്റഗറീലുള്ള ബുക്ക്സാ അവിടെ അവൈലബിളായിട്ടുള്ളത് ഓക്കെ ഓക്കെ നമുക്ക് അവിടെ എപ്പം വരെ ഇരുന്ന് വായിക്കാനായിട്ട്

ലൈബ്രറീൽ നമുക്ക് എപ്പം വരെ ഇരുന്ന് ബുക്കുമൊക്കെ ഇരുന്ന് വായിക്കാൻ എന്തോ ചേച്ചി മൂന്ന് വരെ ഓപ്പണായിരിക്കുമല്ലേ അപ്പോൾ അവിടുത്തെ ഫീസോ കാര്യങ്ങളോ എങ്ങനെയാന്ന് ഒന്ന് പറയാമോ അവിടുത്തെ ഫീസോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്

ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ ആ

പിന്നെ ഇതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ വരുമ്പം എങ്ങനെയാണ് ലീത്

ഓക്കെ ഓക്കെ എന്തെങ്കിലും എന്തെങ്കിലും കാരണത്താൽ ബുക്സിന് എന്തേലും ഡാമേജോ കാര്യങ്ങൾ സംഭവിച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഈ അഡ്മിഷൻ കാഡ് കാര്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഈ ബുക്ക്സ് നമുക്ക് എടുക്കാനായിട്ട് അഡ്മിഷൻ കാഡ് വല്ലതും പ്രൊവൈഡ് ചെയ്യുമോ ഓക്കെ പിന്നെ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഹാൻഡോവർ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ നമ്മൾ തന്നെ ഇത് സൂക്ഷിക്കണം എന്ന് നിർബന്ധമുണ്ടോ പ്രശ്നം ശരിയാട്ടേ

ഇല്ല വേറെ ഡീറ്റേൽസ് ഒന്നുമില്ല ഓക്കെ താങ്ക് യൂ താങ്ക് യൂ അത്രേയുള്ളു ഡീറ്റേൽസ് അത്രയും അറിഞ്ഞാൽ മതി